ബോഡോ ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്സാമിലും മേഘാലയയിലും ബംഗ്ലാദേശിലുമാണ് ബോഡോ ഭാഷയെന്ന് പറഞ്ഞാൽ ഉള്ളത് ബംഗാളിയെന്ന് പറഞ്ഞാൽ ബംഗ്ലായിൽ ഉള്ളതാണ് ഈ ബംഗാളി ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം മലയാളം എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെയാണ് ഈ രണ്ടു ഭാഷകളും എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അതായത് ബംഗാളിയെന്ന് പറയുമ്പോൾ നമ്മൾക്കും മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല അങ്ങനെയൊരു വ്യത്യാസമുണ്ട് പിന്നെ മലയാളമാണ് കുറച്ചുംകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നു വച്ചാൽ നമ്മൾക്ക് ഒരാളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പം കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ ഉണ്ടാവും മലയാളത്തിൽ മറ്റെ ബംഗാളി ഭാഷയിലും അതേപോലെതന്നെയാണ് ബോഡോ ഭാഷയിലും അതേപോലെതന്നെയാണ് കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ ഉള്ള ഒരു ഭാഷയാണ് ഇതും രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് കാണുന്നത് കുറച്ചൂടി നല്ലത് മലയാളമാണ് കാരണം നമ്മളെ മദർ ടംഗ് ന്നു പറയുമ്പോൾ മലയാളമാണ് പിന്നെ അവരുടെ മദർ ടംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഈ ബംഗാളിയും ബോഡോ ഭാഷയും ആയിരിക്കും പക്ഷെ എന്നെ അപേഷിച്ച് എനിക്ക് മലയാളമാണ് നല്ലത് പിന്നെ ബന്ധപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിട്ടാണ് ഉള്ളത് ഈ മൂന്ന് ഭാഷകളും അപ്പം അതാണ് ഇതിനായിട്ട് മെയിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നു കാരണം പറയാൻ